ഹലോ ഞാന് പത്തര ആവുമ്പഴത്തേക്കും ഓട്ടോ വിളിച്ചിരുന്നതല്ലേ നിങ്ങള് പത്ത് അമ്പത്തഞ്ച് പതിനൊന്നുമണിആയല്ലോ ഇതുവരെ ആയിട്ടും വന്നില്ലല്ലോ എന്താ കാര്യം വരാത്തത് ഇങ്ങനെയാവുമ്പോള് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കില് നേരത്തെ പറയണ്ടേ ഇത് സമയത്തിന് എത്രനേരവാ കുഞ്ഞിനെയുംകൊണ്ട് ഹോസ്പിറ്റലിൽ പോവാനായിട്ട് നിക്കുവാ പതിനൊന്നുമണിക്കായെനിക്ക് അപ്പോയിൻമെൻറ്റ് അതാ നിങ്ങൾ പത്തരയാവുമ്പോള് വരണമെന്ന് പറഞ്ഞത് ഇത്രനേരമായിട്ട് നിങ്ങള്ക്ക് വരാനായിട്ട് സാധിച്ചില്ലേ എന്തെങ്കിലുമൊന്ന് ഇത്രനേരമായിട്ടൊന്ന് വിളിച്ചെങ്കിലും പറയാമല്ലോ വിളിച്ചൊന്ന് വിളിച്ചുപോലും പറയാൻ പറ്റിയില്ല ഇത്രനേരമായിട്ട് എന്തു സാഹചര്യം ആകട്ടെ എന്തോന്ന് കുഞ്ഞിനേയുംകൊണ്ട് ഹോസ്പിറ്റലിൽപോവണമെന്ന് ഞാൻ ഇന്നലെയേ വിളിച്ചുപറഞ്ഞതാണ് പത്തരയാവട്ടെ ഹോസ്പ്പിറ്റലിൽ പോവാനുള്ളതാണേ വരണം പതിനൊന്നുമണിക്ക് പതിനൊന്നരയാകുമ്പോള് ഡോക്ടറുള്ളതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് എന്നിട്ടും ഇത്രനേരമായിട്ടും വരാന് പറ്റിയില്ല എന്നാല് ഒന്ന് മര്യാദയ്ക്കൊന്ന് വിളിച്ചെങ്കിലുമൊന്ന് പറയണ്ടേ വരാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന് ആ ശരി ബ്ലോക്ക് ആയിപ്പോയി അതു ശരി സമ്മതിച്ചു ബ്ലോക്കായിപ്പോയെങ്കിലും പിന്നെ നിങ്ങള് വേറെയേതെങ്കിലും ഓട്ടോ അറേൻജീത് പൊയ്ക്കോളാനാണെങ്കിലും പറയേണ്ടതല്ലായിരുന്നോ അതു കുഴപ്പമില്ല ഒന്ന് വിളിച്ച് പറയണ്ടായിരുന്നോ ഞാനിനിയിപ്പോള് എങ്ങനെയാ പതിനൊന്ന് പതിനൊന്നരയാകുമ്പോള് ഡോക്ടറെ കാണാനുള്ളതാണ് പതിനൊന്ന് മണിയാകും പതിനൊന്ന് മണിയായി ഇനി ഞാനെങ്ങനെ പോകും ഇത്ര നേരത്തിനുള്ളില് എനിക്ക് പോകാനായിട്ട് സാധിക്കുമോ അതെന്തുവായിക്കോട്ടെ നിങ്ങള്ക്കങ്ങനെ ഒന്ന് വിളിച്ചൊന്നു പറയാൻ മേലാരുന്നോ ഇത് ഇന്ന് ഇന്നതാണ് സാഹചര്യമെന്നെങ്കിലും അതാ പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നം എന്തും ആയിക്കോട്ടെ ഒന്ന് വിളിച്ചൊന്ന് ഇതാണ് കാര്യം വേറെ ഓട്ടോ ഒന്ന് അറേഞ്ചെയ്ത് പൊയ്ക്കോന്ന് പറയാനുള്ളൂ ഞാൻ എപ്പൊഴും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിങ്ങളുടെ ഓട്ടോ അല്ലെ വിളിക്കുന്നത് നിങ്ങള്ക്കൊന്ന് പറയുന്നതിന് കുഴപ്പമില്ലായിരുന്നല്ലോ ആ ഇനി പോട്ടെ ഞാൻ എന്തേലും ചെയ്തോളാം ശരിയെന്നാല്